എഡ്യൂക്കേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒന്നിനും ഗുണനിലവമില്ലാത്ത എഡ്യൂക്കേഷനാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച് കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യം ഒരു സബ്ജക്റ്റാണെങ്കിൽ അതിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുക മാത്രമാണ് ചെയ്യുക നമുക്ക് പുറമെ ഒരു അറിവ് ലഭിക്കുന്നില്ല കാരണം എന്താണ് കോഴ്സ് പ്രയോജനമുള്ളത് നമ്മൾ അത് തന്നെ കാണാ പാഠം പഠിച്ച് എക്സാം എഴുതി പോകുന്നുണ്ട് ഇപ്പോൾ നീറ്റ് എക്സാം അല്ലാണ്ട് ഗവൺമെൻറ് ഈ പ്ലസ് ടു കഴിഞ്ഞുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറെ എക്സാമുകൾ ഒക്കെ നടത്തുന്നുണ്ട് സൊ നമ്മൾ അതിന് വേണ്ടിയൊരു പ്രീപറേഷൻ നമുക്ക് ഇപ്പം ഒരു ഇത് ഇല്ല നമ്മൾ ഇപ്പോൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെ പഠിച്ച് പോവുക നമ്മൾ തുടർന്നുള്ള ഒരു ഭാവിയിലേക്ക് ഉള്ള ഒരു പ്രീപറേഷൻ്റെ ഭാഗമായിട്ട് വരുന്നില്ലെന്നല്ല എന്നാലും ഏറെക്കുറെ വരാണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കോളേജുകൾ ആണെങ്കിൽ നമ്മളെ അടുത്ത് തന്നെ അവൈലബിൾ ആയിരിക്കില്ല പൊതു പുതിയ കോളേജിലൊക്കെ പുറത്തേക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൂരം കുറവാണ് പിന്നെ പോയി വരാനുള്ള ചിലവ് കൂടും ചിലപ്പോൾ നമ്മൾ അവിടെ ഒരു റൂം എടുത്ത് താമസിക്കാനുള്ള ഹോസ്റ്റലിൽ താമസിക്കാനും അവിടെ ഫീസ് ഒക്കെ അടക്കേണ്ടി വരും അങ്ങനെ അവിടെ കുറെ ചിലവുകൾ അങ്ങനെ കുറെ ചിലവുകൾ ഒക്കെ വരാറുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ജോലി ഒരു കോഴ്സ് പഠിച്ചാലും ജോലി കിട്ടാത്ത കുറെ പേരുണ്ട് ഇപ്പം അങ്ങനെയും കുറെ പ്രശ്നങ്ങൾ കേരളത്തിൽ നേരിടുന്നുണ്ട്